ചില്ലറ വ്യാപാരങ്ങൾ എന്ന് വെച്ചാൽ ചെറിയ ചെറിയ കടകൾ നമുക്ക് വീടിനടുത്തുള്ള ചെറിയ ചെറിയ കടകൾ ഒക്കെ ഈ ചില്ലറ വ്യാപാരങ്ങളാണ് അതുപോലെത്തന്നെ ഹോൾസെയിലായി വല്ല്യ കടകൾ വല്ല്യ വല്ല്യ സൂപ്പർ മാർക്കറ്റുകൾ അവിടെയൊക്കെ പച്ചക്കറികൾ ലഭ്യമാണ് അടുത്ത കാലത്തായി പച്ചക്കറികളുടെ വിലയൊക്കെ വലുതായി കൂടി തക്കാളിക്കൊക്കെ നല്ല വിലയായി അതുകൊണ്ടുതന്നെ തക്കാളി കർഷകർക്ക് നല്ല ഏർണിങ്സ് ഉണ്ടായിരുന്നു അതേപോലെ പച്ചക്കറിക്ക് മരുന്നടിക്കുന്നതൊക്കെ ഈ കാലത്ത് അപൂർവ്വമാണ് ഓൺലൈൻ ഷോപ്പിങ്ങിനെ പ്പറ്റി പറയുകയാണെങ്കിൽ ഓൺലൈൻ ഷോപ്പിങ്ങ് വഴി നമുക്ക് പച്ചക്കറികൾ വാങ്ങിക്കുകയാണെങ്കിൽ നല്ല മെച്ചമെന്ന് പറയുന്നത് നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും അതേപോലെത്തന്നെ നമുക്ക് ഡോറിൻ്റെയടുത്ത് വന്ന് അവർ പച്ചക്കറി തരും അതേപോലെത്തന്നെ നമുക്ക് എമൌണ്ടും നമുക്ക് കുറവായിരിക്കും അതേപോലെത്തന്നെ പിന്നീട് മോശവശം പറയുകയാണെങ്കിൽ ഈ പച്ചക്കറികൾ ഫ്രഷാണോ എന്ന് നമുക്ക് നോക്കി വാങ്ങാൻ സാധിക്കില്ല എക്സ്ട്രാ ചാർജെസ് മേ ബീ ചില ഡെലിവറിക്കാർക്ക് കൊടുക്കും എക്സ്ട്രാ ചാർജെസ് അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഏണിങ്സിന് വേണ്ടീട്ട് അതേപോലെത്തന്നെ പിന്നീട് ഒരു ചീത്തവശം പറയുകയാണെങ്കിൽ ഇത് ഈ എത്രത്തോളം ആ വെജിറ്റബ്ൾസ് പച്ചക്കറികളൊക്കെ ഫ്രഷാണോ നമുക്കറിയാൻ സാധിക്കില്ല